ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് വധുവിന് കൊടുക്കാറ് പുടവ സാരി ആഭരണങ്ങൾ പിന്നെ കുറെ മിഠായി കുറെ ഫുഡ് സ്വീറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സാധാരണ സമ്മാനമായിട്ട് നല്കാറ് അതല്ലാണ്ട് ഇപ്പോൾ സ്ത്രീധനമെന്നുള്ളൊരു കാര്യമൊന്നും അങ്ങനത്തെ ഒന്നും ഒരു സംഭവമേ നമ്മുടെ നാട്ടിൽ ഇപ്പമില്ല എന്നാക്കൂടെ ചില സ്ഥലത്ത് അതൊക്കെ നടക്കുന്നുണ്ടാവും എന്നാലും അതൊന്നും അതങ്ങ് കൊട്ടിയാഘോഷിച്ച് എവിടേം പറഞ്ഞ് നടക്കാറുവില്ല അതാരും എന്കറേജും ചെയ്യാറില്ല അതൊന്നും പാടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഒരിക്കലുമെനിക്ക് തോന്നുന്നില്ല നമ്മളുടെ നാട്ടിലിപ്പം സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വാശി പിടിക്കാറുണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീധനമിണ്ടെങ്കില് മാത്രമേ കെട്ടിക്കൂ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയെങ്ങാനും എവിടെയേലും നടക്കുന്നുണ്ടെങ്കില് അത് വളരെ തെറ്റാണ് സ്ത്രീധനം കൊടുക്കുക ഒരു പെണ്ണിനെ ഒരിക്കലും പൈസക്ക് വേണ്ടീട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് സ്ത്രീധനം മോഹിക്കുക അല്ലെങ്കില് സ്ത്രീധനത്തിന് വേണ്ടീട്ടാണ് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വധുവിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു തെറ്റായ ചിന്താഗതിയാണ് ഞാനതിനെ തീരെ സപ്പോട്ട് ചെയ്യുന്നില്ല അത്കൊണ്ടന്നെ സ്ത്രീധനം എവിടെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നേവെരെ എന്റെ മുന്നില് ഞാന് ഇന്നേവരെ കണ്ടട്ടില്ല ആരെങ്കിലും സ്രീധനം കൊടുത്ത് കല്യണം കഴിക്കുന്നതൊക്കെ ചിലപ്പം ഞാന് അത് നോക്കാത്തോണ്ടുംകാ നോക്കാത്തോണ്ടായിരിക്കാം എന്നാക്കൂടെന്റെ ശ്രദ്ധയില് പെട്ടിട്ടില്ല അധികം സ്ത്രീധനം കൊടുത്തിട്ട് ഒരു കല്യാണം നടത്തുക എന്നൊന്നും ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം നടത്തുമ്പോൾ സ്നേഹത്തോടെ വധുവിനെ ഇഷ്ടപ്പെട്ട് അങ്ങ് കല്യണം കഴിപ്പിച്ച് കൊടുക്കുവാ ചെയ്യുക അല്ലാണ്ട് പൈസ മോഹിച്ചിട്ടൊന്നും ഇന്നേവരെ ആരും വ സ്വന്തം മോളെ വേറൊരാള്ക്ക് കൊടുക്കുന്നതൊന്നും ഞാന് കണ്ടിട്ടില്ല എങ്ങാനും വല്ലോരും സ്ത്രീധനം ചോയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അവരുടെ അച്ഛനും അമ്മയും ഒരിക്കലും ആ ഒരു ബന്ധത്തിന് ആ ഒരു കല്യാണത്തിന് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതെപോലെ തന്നെയാണ് ഞാന് കണ്ടിരിക്കുന്നത് എന്റെ വീടിന്റെ അടുത്തന്നെ ഇന്നാളോസം ഒരു കല്യാണം ആ ചേച്ചീനെ കാണാന് വലിയ ഭംഗിയില്ലാത്തോണ്ട് സ്ത്രീധനം തരുവാണെങ്കിൽ വലിയ ഭംഗിയുമില്ല പഠിപ്പുമില്ല അത്കൊണ്ട് ആ ചേട്ടന് ആകെ പറയുണ്ടായിരുന്നത് കുറച്ച് സ്ത്രീധനം തരുവാണെങ്കില് കല്യാണം കഴിക്കാമെന്നായിരുന്നു അത് കേട്ടപ്പൊത്തന്നെ ആ ചേച്ചീൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല ആ ഒരു ബന്ധം വേണ്ട നമുക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീധനം കൊടുത്തും കൊണ്ടുള്ള കല്യാണം ഞാനിതുവരെ കണ്ടിട്ടില്ല